ഹലോ ഇത് ഗോൾഡ് റെസ്റ്റോറന്റല്ലേ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ചിക്കൻ ബിരിയാണിയും നാല് പൊറോട്ടയും രണ്ട് അൽഫാമുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഞാൻ ഓർഡർ ചെയ്തന്ന് ഒരൽഫാം മാത്രമാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ചില സാധനങ്ങൾ കാണാനില്ല വന്നിട്ടില്ല ഇതിലില്ല അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്കെന്തെങ്കിലും തെറ്റ് പറ്റിയതാണോ അതോ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ നിങ്ങൾ രണ്ടാമത് കൊണ്ടു വരുമോ എന്താണ് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം